കുട്ടിക്കാലത്ത് പറയാറുണ്ട് വാൽ നക്ഷത്രം കാണുമ്പോള് നമുക്ക് വേണ്ടതെന്തും ആഗ്രഹിച്ച് നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ അത് നടക്കുമെന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് ഒരു ട്രിപ്പ് പോയ ഒരു യാത്ര പോയേൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു മലയുടെ മുകളിൽ രാത്രി മൊത്തം ചെലവഴിക്കാൻ തിരുമാനിച്ചു അങ്ങനെ രാത്രി ഞങ്ങളവിടെ ഇങ്ങനെ പായയൊക്കെ വിരിച്ച് കിടക്കുന്നതിനിടയ്ക്ക് ആകാശത്തുകൂടെ ഒരു വാൽ നക്ഷത്രം പോകുന്നത് ഞങ്ങൾ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വച്ചിട്ട് ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു ഇത്രയും നല്ല രീതിയിൽ വന്ന് ഇത്ര അടുത്തായിട്ട് കാണാൻ പറ്റിയത് ഇത്രയും നല്ല വെളിച്ചത്തോടെ ഈ രാത്രി സമയത്ത് വേറെ വെളിച്ചമൊന്നുമില്ലാണ്ട് ആ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വെളിച്ചത്തിനിടയിലൂടെ ഇത്ര നല്ല വെളിച്ചത്തോടെ ഒരു വാൽ നക്ഷത്രം പോയത് കാണാൻ വളരെ ഭംഗിയായിരുന്നു അത് കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇരുന്നു ഈ ഇതേ കാര്യമായ ഈ വാൽ നക്ഷത്രത്തെ കാണുമ്പോൾ നമുക്കിപ്പോള് വേണ്ട ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയായിരുന്നു പിന്നെ ആ രാത്രി മൊത്തവും എൻ്റെ ഒരഭിപ്രായത്തിൽ അത് വെറും ഒരു മിത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ജസ്റ്റ് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞ് നമ്മളെ ഇതാക്കുന്നത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ പോലും അത് വിശ്വാസമുള്ളവരെ ഞാൻ തളർത്താണ്ട് അവരെ സപ്പോട്ട് ചെയ്ത് നില്ക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അത് വിശ്വാസിക്കുന്നവർ വിശ്വസിക്കട്ടെ വിശ്വസിച്ചിട്ട് അവർക്കത് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് വാൽ നക്ഷത്രത്തെക്കുറിച്ച് പറയാൻ വേറെ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവാൻ ചാൻസില്ല നിങ്ങൾക്ക് ഒരു സമയത്ത് വാൽ നക്ഷത്രം കാണാനൊരു ചാൻസ് കിട്ടുവാണെന്നുണ്ടെങ്കില് അത് ദയവ് ചെയ്ത് മിസ്സ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുക